നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക കാർഷിക വ്യവസായത്തെ ഹെല്പ് ചെയ്യാൻ അല്ലെങ്കിൽ എളുപ്പമാക്കാൻ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞത്പോലെ കുറെ ചന്തകൾ ഉണ്ട് അതായത് ചന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കച്ചവട സ്ഥലങ്ങൾ ഇപ്പോൾ ഈ വിപണന കേന്ദ്രങ്ങൾ ഒക്കെ അങ്ങനെയും പറയാം അതായത് ഇപ്പോൾ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ലോക്കൽ ആയിട്ട് പറയുകയാണ് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുമ്പോഴാണ് ഈ ചന്ത കാര്യങ്ങളൊക്കെ ഹൈദിൽ പറയുകയാണ് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് അതായത് നമ്മൾക്ക് ഇപ്പോൾ അവിടെ സാധനങ്ങൾ നമ്മുടെ എന്ത് സാധനങ്ങളും വിൽക്കാനും വാങ്ങാനും ഒരേ പോലെ വിൽക്കാനും വാങ്ങാനും പറ്റിയ ഒരു സ്ഥലമാണ് ഈ മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇവിടെ കന്നുകാലി ചന്ത ഉണ്ട് പച്ചക്കറി മാർക്കറ്റ് പച്ചക്കറികളുടെ ലേലപീടികകൾ എന്ന് പറയും ലേല പീടികകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ലാഭം കിട്ടുന്ന സ്ഥലമാണ് ഈ ലേലം പീടിക നമ്മുടെ സാധനത്തിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ നല്ല സാധനം എന്ന് പറയുമ്പോൾ നല്ല ഡിമാൻഡ് ആയിരിക്കും ഇപ്പോൾ ആൾക്കാർ കൂടുതൽ കാശ് ഒരാൾ പത്ത് രൂപയ്ക്ക് വിളിച്ചു ഒരാൾ ഇരുപത് രൂപയ്ക്ക് വിളിച്ചു അങ്ങനെ വിളിച്ചു വിളിച്ചു നമ്മൾക്ക് കൂടുതൽ കാശ് കിട്ടാനും പിന്നെന്താ പറയുക നമ്മളുടെ സാധനത്തിന് അത്യാവശ്യം നല്ല ഡിമാൻഡും പെട്ടെന്ന് ആൾക്കാർ അറിയാനും പിറ്റേദിവസം നമ്മൾ പോയാലും ആ ഇന്ന ആളാണ് വരുന്നത് അപ്പോൾ അയാളുടെ സാധനം നല്ല ക്വാളിറ്റി ആയിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് നമ്മൾ പറയാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ സാധനത്തിന് ഒരു പ്രചാരം കിട്ടുകയാണ് അപ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായി ആയിട്ട് അതിൻറെ വില കൂടും മറ്റുള്ളവരെപ്പോലെ നമ്മൾക്ക് വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഈ എന്താ പറയുക അവിടെ പോയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം അവിടെ വിറ്റ് സാധനം അതായത് നമ്മൾ ഒരു സാധനം വിറ്റു ഇപ്പോൾ വിറ്റു അത് ഒരു വാങ്ങിയ ആൾക്ക് അവൻറെ മനസ്സിൽ ഉണ്ടാവും അവൻറെ സാധനം നന്നായിരിക്കും അവൻറെ സാധനം മേടിക്കാം എത്ര പൈസ കൊടുത്താലും അത്യാവശ്യം പൈസ കൊടുത്തു മേടിച്ചാലും നഷ്ടം വരില്ലാന്നുള്ള രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോ അതാവുമ്പോൾ നമുക്ക് കൂടുതലും പൈസയും കിട്ടും പിന്നെ നോക്കുകയാണെങ്കിൽ കന്നുകാലി ചന്തകൾ നമ്മുടെ എവിടെ ഇതേപോലെ സെയിം തന്നെയാണ് അതും ലേലത്തിൻ്റെ സെയിം ഇത് തന്നെയാണ് അതായത് പറഞ്ഞാൽ നല്ല മാട് ഇപ്പോൾ ഒരു മാടിനെ കണ്ടുകഴിഞ്ഞ് അപ്പോൾ മാട് വിൽക്കണ ആൾക്കാർക്കും വാങ്ങുന്ന ആൾക്കാർക്കും അതിൻറെ കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ചെവി അതിൻ്റെ കാല് അതിൻ്റെ തൂക്കം അതിൻ്റെ തൊലി എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ അതിന് കണ്ടുകഴിഞ്ഞ് ഏകദേശം എല്ലാവർക്കും അതിനെ വളർത്താനാണോ അല്ലെങ്കിൽ ചിലർ ഇപ്പോൾ വളർത്താൻ ആയിട്ട് മാട്ടിൻകുട്ടികളെ അങ്ങനെത്തേത് മേടിച്ചിട്ടുണ്ട് ചിലർ കൊല്ലാൻ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇവിടെ വളർത്താൻ ആയിട്ടാണ് സാധനങ്ങൾ ഇപ്പോൾ മാടുകളെ മേടിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ ഓരോ ചന്തകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സാധനങ്ങളെ ഇഷ്ടംപോലെ വിൽക്കാനും വാങ്ങാനും ഒക്കെ നമ്മൾക്ക് പറ്റുന്നുണ്ട്